ഞാൻ വേമ്പനാട്ട് കായലിലെ തീരത്ത് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറുപ്പം മുതലേ നീന്താൻ ഇഷ്ടം വേമ്പനാട്ട് കായലായിരുന്നു അവിടെ നമുക്ക് സൗകര്യത്തിന് നീന്തി കുളിക്കാൻ എളുപ്പമാണ് മുങ്ങി നീർക്കാൻ കുഴി ഇടാനും അതുപോലെ തന്നെ ഞാൻ ഈ നമുക്ക് മുങ്ങിയാൽ അടിയിൽ ചെന്ന് ഈ ഇറച്ചിയുള്ള കറുത്ത കക്കയൊക്കെ വാരുക മീൻ പിടിക്കാനും വളരെ ഏറെ സൗകര്യമാണ് മറ്റ് നമ്മൾ കുളത്തിലോ അല്ലെങ്കിൽ ഈ ബീച്ചിലൊക്കെ പോയെന്നാൽ അവിടെ ഒന്നും നമുക്ക് ഈ കായലിൽ കുളിക്കുന്ന അത്ര ഒരു സുഖം കിട്ടില്ല കാരണം ഏറ്റവും നല്ലത് ജലാശയം വേമ്പനാട്ട് കായൽ ഇവിടെ അടുത്ത് ഉള്ളതുകൊണ്ട് അവിടെ പോയി നമുക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടത്തിന് നീന്തി കുളിക്കാം പേടിക്കാനും ഇല്ല വലിയ തിരമാലയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങ് അകലേക്ക് പോവാതിരുന്നാൽ മതി നമ്മളെ വീട് അടുത്ത് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അരികെ തന്നെയാണ് കുളിക്കും അലക്കും ഒക്കെ ചെയ്തുണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും നല്ലത് ഈ വേമ്പനാട്ട് കായൽ ജലാശയത്തിൽ പോയി മുങ്ങി കുളിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം ഇവിടെ അങ്ങനെ അധികം കുളങ്ങളൊന്നുമില്ല പിന്നെ തോടുകളുണ്ട് കൈതോടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതിപ്പം പായലൊക്കെ കയറി നിറഞ്ഞു കിടക്കുവാണ് അതുകൊണ്ട് വേമ്പനാട്ട് കായൽ ആണ് എപ്പോഴും സൗകര്യപ്രദമായിട്ട് ഞാൻ നീന്താനായിട്ട് ഉപയോഗിക്കുന്നതും കുളിക്കുന്നതും എല്ലാം